വയനാട് ജില്ലയില് ഇപ്പം പ്രധാന ആരോഗ്യപ പരിപാലന സൗകര്യമുള്ള സ്ഥലങ്ങള് ഏതൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കില് മെയിനായിട്ട് ഞങ്ങൾക്കറിയാവുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കില് മാനന്തവാടി ഹോസ്പിറ്റലാണ് ഞാൻ നമ്മളിപ്പം എന്തെങ്കിലുമൊരു അസുഖം ഉണ്ടെങ്കില് വേഗം അവിടേക്കാണ് പോവുക പിന്നെ എന്തെങ്കിലും ഇപ്പം അവിടേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളുദ്ദേശിക്കുന്ന ഒരു രീതിയിലുള്ളൊരു ചികിത്സയൊന്നും കിട്ടുന്നില്ല ഇപ്പം നമ്മള് ഗവൺമെൻറ് ഹോസ്പിറ്റലിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മരുന്ന് എല്ലാ സൗകര്യങ്ങളും അവര് ഫ്രീ ആയിട്ട് തരേണ്ട കാര്യങ്ങളാണ് പക്ഷേ കുറച്ചു റേറ്റുള്ള മരുന്നുണ്ടെങ്കിൽ അവര് പുറത്തുപോയി മേടിച്ചോളാൻ പറയും അവിടെ ഇച്ചിരി റേറ്റ് കുറഞ്ഞുള്ള മരുന്നുകളും അങ്ങനെയൊക്കെ ഉണ്ടാവുകയുള്ളു പിന്നെ അവര് നമ്മള് ഡോക്ടർമാരുടെ വീട്ടിൽ പോയിട്ട് പൈസ കൊടുത്ത് നോക്കുന്നത് പോലെ അവരെന്തായാലും നമ്മളെ അവിടെ ഹോസ്പിറ്റലില് നമുക്ക് നമ്മളെ നോക്കാറില്ല ഒരു രണ്ടു മിനിറ്റു നോക്കി എന്തെങ്കിലുമൊക്കെ എഴുതിത്തന്നിട്ട് അവരങ്ങുവിടും പിന്നെ താഴെ എത്തുമ്പഴത്തേക്ക് മരുന്ന് മേടിക്കാൻ പോകുമ്പഴത്തേക്കും അവര് പറയും ഈ ഒരു മരുന്നേ ഇവിടുള്ളൂ ബാക്കി നിങ്ങള് താഴേന്നു മേടിച്ചോ ഇവിടില്ലാത്ത മരുന്നാന്ന് പറയും അപ്പം നോക്കുമ്പം അത് വലിയ പൈസ തന്നെയായിരിക്കും അങ്ങനെയുള്ളതൊന്നും അവര് തരില്ല പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സീരിയസൊക്കെ ആയിപ്പോയിട്ടുണ്ടെങ്കിൽ അവരെന്തായാലും അവിടെ എടുക്കുകയില്ല അവര് വേഗം പറയ് മേപ്പാടി വിട്ടോളാൻ പറയും അല്ലെങ്കിൽ നമ്മളോട് പറയും മേപ്പാടി നിംസ് ഹോസ്പിറ്റലുണ്ട് അവിടെ വിട്ടോളാൻ പറയും അല്ലെങ്കിൽ മേപ്പാടി ഇപ്പം മേപ്പാടീ എന്ന് പോയില്ലെങ്കി അല്ലെങ്കിൽ മെഡിക്കൽ കോളേജില് കൊണ്ട് പോയ്ക്കൊള്ളാൻ പറയും ഇപ്പം മേപ്പാടിയിലുള്ള അയി അതിനുള്ള ഇത് ഇല്ലെങ്കിൽ നമ്മള് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോവും ഇപ്പം മാനന്തവാടിയെന്ന് പറഞ്ഞാലും മെഡിക്കൽ കോളേജ് ആണല്ലോ പിന്നെ എന്തുകൊണ്ടിവര് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് നമ്മളെ റഫറ് ചെയ്യേണ്ട ആവശ്യമെന്താണ് അവരും ഇവരും പഠിച്ചിട്ടു തന്നെയാണല്ലോ നമ്മളെ നോക്കുന്നത് ഇവിടെ ഇഷ്ടം പോലെയുണ്ട് ആൾക്കാര് അവര് അവരും ഇതുപോലെത്തന്നെയാണ് പഠിച്ചിട്ട് ഇവര് പഠിക്കുന്നത് പോലെ തന്നെ എം ബി ബി എസ് പഠിച്ചിട്ടാണല്ലോ അവരും ഇതാക്കിയേക്കുന്നത് അപ്പം പിന്നെ എല്ലാം ഒരേപോലെയല്ലേ നോക്കേണ്ടത് പിന്നെ നമ്മളെ അങ്ങോട്ട് റഫറ് ചെയ്യേണ്ട ആവശ്യം ഇവർക്കില്ലല്ലോ അപ്പം ഇവിടേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരോഗ്യമേഖലയില് വന്നാൽ വെറും മോശമാണ്